വയനാട് ജില്ല നേരിടുന്ന പൊതുവായ വെല്ലുവിളിയെന്നു വെച്ചാല് പിന്നെ ചിലയിടത്ത് ഈ വേനൽകാലമൊക്കെ ആകുമ്പോൾ ചിലയിടത്ത് പിന്നെ വെള്ളത്തിന് വളരെ വലിയ അഭാവം ആണ് ഉണ്ടാവുന്നത് കിണറ്റിൽ വെള്ളം വറ്റി പോവുക പിന്നെ അതുപോലെ ഈ മഴക്കാലങ്ങളില് കൃഷിനാശം ഒരുപാട് കൃഷി നശിച്ച് പോവുന്നുണ്ട് പിന്നെ കീടങ്ങള് കീടങ്ങളുടെ ആക്രമണം പിന്നെ അതുപോലെ കൃഷി കൃഷിക്കാർക്കും വളരെ വെല്ലുവിളി ആയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ജലസേചനസൗകാര്യമെന്ന് വെച്ചാല് ഇപ്പോൾ വേനൽ കാലത്ത് ആയിക്കോട്ടെ കൃഷിക്ക് ഒക്കെ ഒരുപാട് വെള്ളം ആവശ്യമുണ്ട് അതുപോലെ വീട്ടുകാര്യങ്ങൾക്കായിക്കോട്ടെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് ഇതൊന്നും ലഭിക്കാതെ ആയിട്ട് വരുന്നുണ്ട് എന്നാലും ജലനിധി വെള്ളം ചിലയിടത്ത് മാത്രമേ കിട്ടുന്നുള്ളു ചിലയിടത്ത് കിട്ടുന്നുമില്ല ജലനിധിവെള്ളം ഉണ്ടായിട്ട് തന്നെ പോലും ഒരു ഒരു പരിധി വരെ കിട്ടുള്ളു ഇപ്പം തീരെ പൈസ ഒന്നും എടുക്കാനില്ലാത്ത ഒരു അവർക്ക് പൈസകൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥ ആണ് വരുന്നത് അവർക്കൊക്കെ ഒരു പിന്നെ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുകയാണെങ്കില് ഒരുപാട് ഉപകാരമായിരിക്കും പിന്നെ അല്ലെങ്കിൽ ജലനിധി വെള്ളം തന്നെ കിട്ടുന്നുണ്ടെങ്കിൽപ്പോലും ഒരു ഒരു സമയത്തേ അത് കിട്ടുള്ളു അത് വളരെയൊരു വലിയൊരു പരിമിതി ആണ് അതുപോലെതന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കും പിന്നെ മഴക്കാലത്ത് ആയിക്കോട്ടെ ഒരുപാട് വീടുകളും അത് ചോർച്ചയും അതുപോലെ വഴി സൗകര്യങ്ങള് സൗകര്യങ്ങളില്ലായ്മ ഇതൊക്കെ ഉണ്ട് കർഷകർക്ക് ജൈവവളം ഒക്കെ ഒരു ഒരു മിതമായ ജൈവവളം ആയിക്കോട്ടെ മിതമായ ഒരു പൈസക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ വാഴ അങ്ങനത്തെ ഒരുപാട് കൃഷി ഇടങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു ഒരു മഴയത്ത് തന്നെ ഫുള്ള് ഫുള്ളായിട്ട് നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ട് വരുന്നത് അതൊക്കെ ഒരു പരിധി വരെ സർക്കാര് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരുന്നു